ഞാൻ ഒരു ദിവസം ബാംഗ്ലൂരിൽ പോകാൻ വേണ്ടി ട്രെയിൻ ബുക്ക് ചെയ്തു എനിക്ക് ഒരു ആറ് മണിക്കായിരുന്നു ട്രെയിൻ ഞാൻ അതിനുവേണ്ടി ഓട്ടോക്കാരനോട് പറഞ്ഞു എനിക്ക് ഓട്ടോ നമുക്ക് ആറ് മണിക്കാണ് ട്രെയിൻ ട്രെയിൻ അതുകൊണ്ട് ഒരു നാലര എങ്കിലും ആവുമ്പോൾ എൻ്റെ വീട്ടിൽ വരണം നമുക്ക് കൃത്യസമയത്ത് തന്നെ ട്രെയിൻ പോകുന്നതാണ് അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞിരുന്നു ഓട്ടോക്കാരൻ വന്നപ്പോൾ താമസിച്ചു അവിടെ ചെന്നപ്പോൾ എൻ്റെ ട്രെയിൻ ഞങ്ങൾ കടത്തൊക്കെ കയറി പോകേണ്ടവരാണ് അതുകൊണ്ട് കടത്ത് കയറി അവിടെ ചെന്ന് അവിടെ ചെന്ന് ഞങ്ങൾ കടത്ത് നോക്കി അര അര മണിക്കൂർ നിന്നു കടത്ത് കയറി അര മണിക്കൂർ നിന്നുകഴിഞ്ഞ് അക്കരെ ഇറങ്ങി അക്കരെ നിന്ന് ഞങ്ങളുടെ ഓട്ടോ വിട്ട് റോഡ് പണി ഒക്കെ ആയതുകൊണ്ട് ഇപ്പം ബ്ലോക്ക് ഒക്കെ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയമെടുത്തു അവിടെ ചെന്നപ്പോൾ എൻ്റെ ട്രെയിൻ മിസ്സ് ആയിപ്പോയി ഞാൻ ആകപ്പാടെ വിഷമിച്ച് പോയി ഞാൻ എന്നിട്ട് ഓട്ടോക്കാരനോട് ഞാൻ കുറേയെല്ലാം അങ്ങ് പറഞ്ഞു കേട്ടോ കാരണം ഓട്ടോക്കാരനോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അറിയില്ലേ ഓട്ടോ എനിക്ക് ആറ് മണിക്കാണ് ട്രെയിൻ എന്ന് ഞാൻ പറഞ്ഞല്ലേ വിട്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾ വരാഞ്ഞത് നിങ്ങൾ കാരണം അല്ലേ എൻ്റെ ട്രെയിൻ മിസ്സ് ആയത് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ ഓട്ടോക്കാരനോട് കുറച്ച് ചൂടാവുകയൊക്കെ ചെയ്തു പിന്നെ അത് അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം ആയിപ്പോയി പിന്നെ ഓട്ടോക്കാരൻ എന്നോട് സോറി ഒക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു സോറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ പോകേണ്ട സമയത്ത് ട്രെയിൻ മിസ്സ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകേണ്ട സമയത്ത് എനിക്ക് എത്താൻ പറ്റുമോ ഇനി എനിക്ക് എന്ന് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓട്ടോക്കാരനോട് ചൂടായി അങ്ങനെ എനിക്ക് അന്നത്തെ പോക്ക് പോകാൻ പറ്റിയില്ല എനിക്ക് വളരെ സങ്കടം ആയിപ്പോയി അത് ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു സോറി സോറി ഞാൻ പറഞ്ഞു സോറി പറഞ്ഞിട്ടൊന്നും കാര്യം ഇല്ല പോകേണ്ട സമയത്ത് പോ പറയേണ്ട സമയത്ത് എത്തിക്കാൻ എത്തേണ്ട സമയത്ത് എത്തിയില്ലെങ്കിൽ ട്രെയിൻ മിസ്സ് ആയില്ലേ എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഓട്ടോക്കാരനായിട്ട് വഴക്കിട്ടു അങ്ങനെ എനിക്ക് വളരെ സങ്കടകരമായൊരു അവസരമായിരുന്നു അത് പിന്നെ അങ്ങനെ ഓട്ടോക്കാരനെ ഞാൻ പിന്നെ പണം കൊടുക്കാനായിട്ട് ഞാൻ ഒത്തിരി ദേഷ്യം കാണിച്ചു പിന്നെ ഞാൻ പണം കൊടുത്തു